യോഗയെക്കുറിച്ച് പറയുകയാണെങ്കില് ബി സീ ഇരുന്നൂറാം ഇരുന്നൂറ് തൊട്ട് യോഗ ഉണ്ട് എന്നാണ് കരുതപ്പെടുന്നത് അതായത് രണ്ട് ആ ഒരു അയ്യായിരം വർഷം പഴക്കമുണ്ട് യോഗയ്ക്ക് എന്നാണ് കരുതപ്പെടുന്നത് ആദി യോഗി എന്ന് പറയുന്നത് ശിവനാണ് കാരണം പിന്നേ യോഗം എന്നുള്ളവർക്ക് ഈ നമ്മള് ധ്യാനിക്കാൻ ഇരിക്കുമ്പോൾ ഏറ്റവും വേണ്ടത് നമ്മുടെ കണ്ണും മനസ്സും ഒക്കെ ഏകവകൃതയിലിരിക്കുക എന്നതാണ് ഇപ്പം നമ്മുടെ കയ്യിലില്ല അതേപോലെത്തന്നെ പതഞ്ജലി അദ്ദേഹമാണ് നൂറ്റി എൺപത്തിയഞ്ച് സൂത്രത്തിലാണ് മഷ് മഹർഷി പിന്നെ യോഗയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് എന്ന് ഒക്കെയുണ്ട് ഉം അത് ക്രിസ്തുവർഷത്തിന് മുൻപായിരുന്നു അദ്ദേഹം ജീവിച്ചത് അല്ല ക്രിസ്തുവർഷം കഴിഞ്ഞിട്ടാണ് എന്നുള്ളതൊക്കെയുണ്ട് അദ്ദേഹം ഒരു അ ഫേമസ് ആയുള്ള ഒരു യോഗിയാണ് യോഗയില് പല ഇതുണ്ട് പല യാഗം അതായത് സൂര്യാസ്തമയം അതായത് പുലർച്ചെ നാല് മാണി തൊട്ട് ഉള്ള പിന്നെ സൂര്യനെ സൂര്യനൊരു മുഖ്യ ഇതുണ്ട് യോഗയില് അതേപോലെത്തന്നെ ആദിശേഷൻ്റെ അവതാരമാണെന്നാണ് ആ പിന്നെ കരുതുന്നവര് ഉണ്ട് ശിവശിഷ്യൻ നന്ദിയിൽ നിന്നാണ് പതഞ്ജലിക്ക് ഈ ആ യോഗ അഭ്യസിച്ച് കിട്ടിയതെന്ന് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് പിന്നെ അദ്ദേഹം തന്നെ ശിവനെ അ അതായത് അനന്ത ധർത്തിയിൽ ശിവനെ ദർശിച്ചു എന്നും സംസ്കൃതത്തിലും തമിഴിലും അദ്ദേഹം കുറെ ഇത് എഴുതിയിട്ടുണ്ട് മറ്റേ അ യോഗയെ കുറിച്ചിട്ടുള്ളതൊക്കെ പിന്നെ അദ്ദേഹത്തിൻ്റെ സമാധീ എന്ന് പറയുന്നത് ബ്രഹ്മേശപുരത്തിന് സമീപം തിരുവട്ടൂര് രാമേശ്വരത്തിനടുത്താണ് കെട്ടോ അവിടെയാണ് ജീവസമാധി നമുക്കവിടെ ദർശിക്കാൻ കാണിക്കും പതഞ്ജലി മഹർഷിയുടേത് അദ്ദേഹം പിന്നെ യോഗയിലൊര് അഗ്രകണ്യനായിരുന്നു പിന്നെ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് തിരുമാലൈ കൃഷ്ണാചാര്യ അദ്ദേഹം ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു യോഗാചാര്യനാണ് അതേപോലെത്തന്നെ ഇരുപത്തിയൊന്ന് ജൂണ ജൂൺ ഇരുപത്തൊന്നാം തിയതി നമ്മുടെ മോദിജി യോഗ ലോ അതായത് ഇന്ത്യയിലെ യോഗാദിനമായിട്ട് അന്ന് ആഘോഷിക്കുന്നുണ്ട്